പത്രങ്ങൾ വച്ചാൽ മലയാള മനോരമ അത് അതില് അതിൻ്റെ കണ്ടൻ്റുകളൊക്കെ വളരെ മാന്യ രുപത്തിൽ ഷോർട്ടായിട്ട് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള കണ്ടൻ്റുകളൊക്കെ കുറച്ചു വരും പിന്നെ സ്പോർട്സ് പേജ് നല്ല പത്രത്തിൽ എല്ലാം നൊർമ്മല് ഉണ്ടാവും പക്ഷെ പഠിപ്പുര പറഞ്ഞ സംഗതിയുണ്ട് അതിൽ വരുന്നത് പത്താം ക്ലാസ് പ്ലസ് വണ്ണ് പ്ല്സ് ടു പഠിക്കുന്ന കുട്ടികൾകൊക്കെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കരിക്കുലവും അധികം വരാറുള്ളത് പിന്നെ മാസിക എന്നു വച്ചു പറയുകയാണെങ്കിൽ മാസിക ഇന്നത്തെ കാലഘട്ടത്തിൽ പലതരം മാസികകളും ഉണ്ട് അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട മാസിക എന്ന് പറഞ്ഞത് മലയാള മനോരമ തന്നെ മാസിക ഉണ്ടല്ലോ അതുപോലെ വനിത ഇതൊക്കെ ഗേൾസ് പരമായിട്ടുള്ള കാര്യങ്ങളും പിന്നെ ഫാഷൻസ് എല്ലാം നിറഞ്ഞ ഇതാണ് വനിത പറയുന്നത് പിന്നെ ഓരോരുത്തരുടെ ജീവിത കുറിപ്പുകളും കാര്യങ്ങളൊക്കെ മാസികയിൽ ഉണ്ടാവും വനിതയിൽ ഓരോരുത്തരുടെ ജീവിതം അതേപോലെ ശൈലി കാര്യങ്ങളും മോഡൽസ് കാര്യങ്ങൾ അങ്ങനത്തതൊക്കെ വനിതയിൽ ഉണ്ടാവും പത്രത്തിലാണെങ്കിലും നമ്മൾ നമ്മളറിയാതെ അകപ്പെട്ട കുടുംബം അതുപോലെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ആൾക്കാർ മരണപ്പെട്ടതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ പത്ര നോക്കിയാൽ നമുക്ക് ന്യൂസായിട്ട് നമ്മൾക്ക് കാണാം പിന്നെ പത്രത്തിൽ പല ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് വിവാഹത്തിനായാലും ജോബ് വേക്കൻസി ആയാലും എല്ലാത്തിനും അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ആയിട്ട് പരസ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മാസിക വനിത വച്ചാൽ ഇതിൽ പത്രത്തിലുള്ള പോലെയുള്ള എന്താണ് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ നോർമലായിട്ടുള്ള രൂപത്തിലള്ളതേ ഉള്ളു മലയള മനോരമയിൽ തന്നെ ഓവറായിട്ടുള്ള പൈസയും കാര്യങ്ങളൊന്നുമില്ല ഒക്കെ നോർമലായിട്ട് തന്നെ ഉള്ളതേ ഉള്ളു പിന്നെ വലിയ ഒരു പരസ്യത്തിനായിട്ട് മാറ്റി വയ്ക്കാൻ പറ്റിയ പേജ് കാര്യങ്ങൾ അതൊന്നും ഇല്ല ഞാൻ വിശ്വസിക്കുന്നു കണ്ടിട്ടില്ല പിന്നെ ഓരോ വിഷു പ്രമാണിച്ചു അങ്ങനത്തെ അതിനുള്ളതായ നല്ല സീകരണവും കാര്യങ്ങളൊക്കെയുള്ള പേജുകൾ വേറെ ഉണ്ടാവും എന്ത് പെരുന്നാൾ ആകട്ടെ വിഷു ആകട്ടെ ഓണമാവട്ടെ എന്തിനാണെങ്കിലും അങ്ങനെ തന്നെ അതിൻ്റെതായ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള നോട്ട്സ് വേറെ ഏറ്റവും അവരെ അടുത്തുണ്ടാവും പിന്നെ ഓരോ വാർത്ത വായിക്കുമ്പോൾ ആണെങ്കിലും എന്തെങ്കിലും ഓരോ പോയിൻ്റിലും ഓരോ കണ്ടൻ്റ് ഉണ്ടാവുന്ന രീതിയിലാണ് ഒരേ വാർത്ത എഴുതാറുള്ളത് കുറേ വാരി വലിച്ചു അങ്ങനെ എഴുതാറില്ല പിന്നെ സ്പോർട്സ് പേജ് ആണെങ്കിലും തന്നെ തന്നെ നമുക്ക് നോക്കാനൊരു ഇൻട്രസ്റ്റ് തോന്നും കാണുമ്പം തന്നെ ഒരു ഇതിൻ്റെ മിനിമം ഒക്കെ വരണ്ടി പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ അത് ഇൻട്രസ്റ്റ് തോന്നുന്നില്ലേ നമ്മൾ നോക്കാറുള്ളൂ അതുപോലെ തന്നെ അതും ചിത്രം നോക്കുമ്പോഴായാലും വനിത നോക്കുമ്പോഴായാലും നമുക്ക് കാണാൻ വായിക്കാനാണെങ്കിൽ എന്താവും എന്നൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും പിന്നെ അതിൻ്റെ പുറമെ നമ്മൾ നോക്കും അപ്പം നമുക്ക് ഇഷ്ടപ്പെടും ഓരോരുത്തർക്കും ഓരോ കോൺഫിഡൻസ് ആണല്ലോ